അതായത് നമുക്കിപ്പം എപ്പഴാണോ ഒരു മത്സ്യ ബന്ധന യാത്ര വിജയകരമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും അത് അതറിയാം അത് ചോദിക്കണ്ട കാര്യമില്ല നമ്മളിപ്പം അതായത് നമ്മളൊരു തൊഴിലാണെങ്കിലും നമ്മളെല്ലാരും കൂടെ എൻജോയ് ചെയ്തിട്ട് നമ്മള് അതായത് ഒരുപാട് കടലുകളൊക്കെ താണ്ടിയിട്ട് നമ്മളെന്തിനാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്കൊരുപാട് മീനുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അതു വിറ്റ് നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് അതായത് ഭക്ഷണവും കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടില് കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാരും കൂടുതലായിട്ട് നമ്മുടെ കഷടപ്പാട് കൊണ്ട് തന്നെയാണ് നമ്മള് മത്സ്യ ബന്ധനത്തിനും കാര്യത്തിനൊക്കെ പോകുന്നത് അപ്പം അതുകൊണ്ട്തന്നെ നമുക്കിപ്പം അത് ഒരുപാട് മീനുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് അതായത് എറ്റവും പിന്നെ ഈ ഒര് യാത്ര വിജയകരമാവുന്നത് അതിന് മീനൊന്നും കിട്ടിയില്ലെൽ നമ്മക്കൊരിക്കലും ആ യാത്ര വിജയകരമാവില്ല അപ്പം ഒരുപാട് മീനൊക്കെ നമുക്ക് ചാകരയൊക്കെ കിട്ടുവാണെങ്കിൽ തന്നാണ് നമുക്ക് പിന്നെ ആ യാത്ര നമുക്ക് വിജയകരമെന്നും നമുക്ക് പറയാൻ പറ്റുള്ളു പിന്നെന്ന് വെച്ചാൽ അത് നമ്മള് ആ ഒരു ഒരുപാട് ഇതൊക്കെ കിട്ടുമ്പം നമ്മള് ഒരുപാട് അത് ആഘോഷിക്കും പിന്നെ നമ്മള് ഒരുമിച്ച് ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടും അതേപോലെ ഒരുപാട് മീനുകള് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളോരോ മുദ്രാവാക്യങ്ങളൊക്കെ തമ്മില് പറയും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്